ഒരു വീട്ടിൽ ഇപ്പോൾ കുറേ ആൾക്കാരുണ്ടെങ്കിൽ എല്ലാവർക്കും ഓരോരോ രീതിയിലായിരിക്കും ഓരോരുത്തരുടെ ഇഷ്ടങ്ങൾ ഓരോരോ രീതിയിലായിരിക്കും ചിലർക്ക് ഇപ്പോൾ കറിയിൽ ഉപ്പ് ചിലപ്പോൾ ജാസ്തി വേണ്ടിവരും ചിലപ്പോൾ കുറവ് വേണ്ടിവരും എരിവ് ഒട്ടും പറ്റാത്ത ആൾക്കാരുണ്ടാകും എരിവ് നല്ലവണ്ണം പറ്റുന്ന ആൾക്കാരുണ്ടാകും അപ്പം അങ്ങനെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് നമ്മൾ ഒരു എന്താണ് പറയുക രണ്ടുപേർക്കും പറ്റുന്ന ഒരു രീതിയിൽ വെച്ചുകൊടുക്കുക എന്നുള്ള രീതിയിലായിരിക്കും ചിലർക്ക് അധികവും പറ്റാത്ത ദിവസം നമ്മൾ എന്തെങ്കിലും ചെറുങ്ങനെ ആക്കി കൊടുത്തിട്ട് അങ്ങനെയൊക്കെ അല്ലേ നമ്മൾ ഭക്ഷണം വയ്ക്കുക പിന്നെ ചില ദിവസം നമ്മൾ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളും ഇടക്കെന്നെല്ലാം നോക്കിയിട്ട് ഓറ ഇഷ്ടത്തിന് അനുസരിച്ചെല്ലാം കൊടുക്കുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും അപ്പം ഒരുപാട് ഒരുപാട് വീട്ടിൽ ഒരുപാട് പേർ ഉണ്ടാവുന്ന സമയത്ത് ഓരോരുത്തരുടെയും ഇഷ്ടങ്ങൾ നോക്കി വയ്ക്കാനൊന്നും പറ്റില്ല അങ്ങനെയാണെങ്കിൽ ഒരു ഗ്യാസ് അല്ല ഒരാൾക്ക് ഒരു ഗ്യാസ് ഒരാൾക്ക് മറ്റേ ഗ്യാസ് അങ്ങനെ വേണ്ടിവരും അപ്പോൾ അങ്ങനെ പറ്റില്ല നമ്മളെല്ലാവർക്കും അങ്ങനെ ചെയ്യുക എല്ലാവർക്കും പറ്റുന്ന ഒരു രീതിയിൽ എല്ലാവർക്കും കഴിക്കാൻ പറ്റും ഓക്കേ പറ്റും എന്നുള്ള രീതിയിലാണ് വയ്ക്കുന്നത് അതിപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെ നോക്കുവാണെങ്കിൽ അമ്മയ്ക്ക് അങ്ങനെ ഉപ്പ് കൂടുതൽ പറ്റില്ല അപ്പോൾ അമ്മയ്ക്ക് ഉപ്പ് കുറവ് കുറച്ചിടുന്ന സമയത്ത് ചിലപ്പോൾ അനിയൻ അത് ഇഷ്ടപ്പെടില്ല ഉപ്പ് കുറവ് അയ്യേ ഉപ്പ് കുറവ് അപ്പോൾ ഓന് വേണ്ട ഉപ്പ് ഓന് കുറച്ച് എടുത്ത് കറിയിലേക്കിടുകയാണെങ്കിൽ അങ്ങനെ അങ്ങനെയൊക്കെയാണ് ഇവിടെ ചെയ്യാറുള്ളത് അപ്പോൾ ഓരോരുത്തരുടെ ടേസ്റ്റ് ഓരോരുത്തരുടെ രീതിയിലല്ലേ ഞാൻ വയ്ക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര എരിവ് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ പക്ഷേ എൻ്റെ അനിയന് അങ്ങനെ എരിവ് ഭയങ്കര ഒരു ഇഷ്ടമൊന്നുമല്ല അപ്പം അത് രണ്ടും ഒരു എന്താണ് പറയുക ഒരു കുഴപ്പമില്ല എനിക്ക് എരിവ് അത്യാവശ്യം ഉണ്ട് അവൻ എരിവ് എന്നാൽ അത്യാവശ്യം ഇല്ല എന്നുള്ള പോലെ രീതിയിൽ രണ്ടും അങ്ങനെ ഒരു രീതിയിൽ വയ്ക്കുകയാണെങ്കിൽ ഭയങ്കര ഒരു ഇതായിരിക്കും ഭയങ്കര ഭയങ്കര നമുക്ക് പണിയും ഭയങ്കര സുഖായിരിക്കും അല്ലാണ്ട് നമുക്ക് രണ്ട് രീതിയിലൊന്നും വയ്ക്കുക എന്നു പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരു ദിവസം രാവിലെ തിന്നൽ ഉച്ചയ്ക്ക് തിന്നൽ രാത്രി തിന്നൽ ഇതൊക്കെ എല്ലാവർക്കും പറ്റുന്ന രീതിയിൽ എല്ലാവർക്കും ഒരാൾക്ക് ഈ കറി ഒരാൾക്ക് മറ്റേ കറി അങ്ങനെ വയ്ക്കുക എന്നു വെച്ചാൽ ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാറില്ല എല്ലാവർക്കും പറ്റുന്ന ഒരു രീതിയിൽ വയ്ക്കും ഇപ്പോൾ ചായയെല്ലാം വയ്ക്കുന്നെങ്കിൽ ഒരാൾക്ക് മധുരം വേണ്ടെന്നുണ്ടെങ്കിൽ മധുരം ഇല്ലാണ്ട് വയ്ക്കും ഒരാൾക്കും മധുരം കുറവാണെങ്കിൽ മധുരം കുറച്ച് വയ്ക്കും എന്നിട്ട് കൂടുതൽ ആണെങ്കിൽ അങ്ങനെയൊക്കെ വയ്ക്കും പക്ഷേ ഇപ്പോ കറി വയ്ക്കുമ്പോൾ വേറെ എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാറില്ല അങ്ങനെയുള്ള രണ്ടുപേർക്കും പറ്റുന്ന ഒരു രീതിയിൽ കഴിക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് വയ്ക്കുന്നത്